പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതുന്നതിന് എഴുതുന്നില്ലെങ്കിലും എഴുതാനൊരു വിഷമമായിട്ട് തോന്നാറുണ്ട് കാരണം എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഈസിയായിട്ട് മറ്റ് വിധത്തിൽ ഇതേ കാര്യം സാധിച്ച് കിട്ടുന്നെങ്കിൽ പിന്നെന്തിനാണ് ആ വിധത്തിൽ വിഷമിക്കുന്നത് എന്ന തോന്നലായിരിക്കും പിന്നെ അക്ഷരങ്ങളെഴുതാൻ സൂക്ഷ്മമായിട്ട് അറിയണം വളവും തിരിവും എല്ലാം അറിയണം മലയാളം എഴുതുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ് പായും പായും തായും കായും കായും എല്ലാം ഏതാണ്ട് ഒരുപോലെ ഒക്കെയാ ഉച്ചാരണത്തിൽ വരുന്നത് അത് നമ്മൾ അങ്ങനെ റ്റൈപ് ചെയ്യുകയാണെങ്കിൽ ലാപ്ടോപ്പിലോ പി സീ ലോ ഒക്കെ റ്റൈപ് അതാണ് എളുപ്പം അക്ഷരത്തെറ്റുകൾ തീരെ കുറവായിരിക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അത് റ്റൈപ്പ് ചെയ്തതിൻ്റെ വൃത്തി എഴുതുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഇതിൽ മൊബൈൽലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഒക്കെ ആ മുഴപ്പ് ഈ ടൈപ്പ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത് കാണാനും പിന്നെ എന്ത് അറയിൻജുമെൻറ്റുകൾ നമുക്ക് ചെയ്യാം ഏത് സമയത്തും കറക്ട് ചെയ്യാം ഒരിക്കൽ ടൈപ്പ് ചെയ്ത് നമ്മൾ കോപ്പി എടുക്കുകയോ ഒക്കെ ചെയ്തതിനു ശേഷം പോലും വീണ്ടും നമ്മക്ക് ഒറിജിനല് എഡിറ്റ് ചെയ്യാനും മറ്റുമുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് മൊബൈൽലും നമ്മുടെ ലാപ്ടോപ്പിലും പി സീ ലൊക്കെയാ വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ലാപ്ടോപ്പും പി സി യൊക്കെ വരുന്നത് എഴുപത്തഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിന് ശേഷമായിരിക്കുമെന്നാണ് ഓർമ അന്ന് അത് തീരെ പഠിച്ച് എടുക്കാൻ വളരെ പക്ഷെ എല്ലാ കീസും ഓർത്തിരിക്കാനൊക്കെ വിഷമങ്ങളുണ്ടായിരുന്നു ഇപ്പഴും ചെല കീകൾ ഓർത്ത് മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്നാൽ തന്നെയും മൊബൈൽല് ടൈപ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എന്തോ ആയിട്ടാണോ ഈസി ആയിരിക്കും മിസ്റ്റേക്കുകൾ കൂടാതെ ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ നമുക്ക് തന്നെ എഴുതി അത് ഈ പഠിക്കുന്ന പോലെ തന്നെ എഴുതി അറയിഞ്ച് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് എഴുത്തിനേക്കാൾ കൂടുതൽ കരുണ്യമായിട്ടുള്ള കാര്യം ഈ ടൈപ്പ് ചെയ്യുന്നത് തന്നെയാ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിന് ഷേപ്പുകൾ വരുത്തി എഡിറ്റ് ചെയ്ത് ഏറ്റവും നല്ല ഹാൻഡ്റൈറ്റിംഗ് അല്ല വായിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് എഴുതിയത് കാര്യം തന്നെ നമ്മൾ പരിശോധിച്ച് പേപ്പറ് കെട്ടുകളൊന്നും സൂക്ഷിക്കണ്ട എല്ലാം മെമ്മറി തന്നെ സ്റ്റോറ് ചെയ്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ നമുക്ക് വർഷങ്ങൾക്ക് ശേഷവും അത് എടുത്ത് കാണാനോ അല്ലെങ്കിൽ കോപ്പി എടുക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നി എഴുതിക്കുന്ന ആളെ ഈ കൈയ്യെഴുത്തും ഒക്കെ നിന്നു പോകാനുള്ള സാധ്യതയാണെന്നാണ് എനിക്ക് തോന്നുന്നേ എല്ലാവരും ഇപ്പോൾ ധാരാളം പേരും ലാപ്ടോപുമായിട്ട് നടക്കുന്നവരുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും തന്നെ ഇതിനകത്ത് മാസ്റ്റർ ഇത് ഉപയോഗിക്കുന്ന അവർക്ക് അറിയാം എല്ലാ കീകളും എന്താ ഭാഷ കീകളുമെല്ലാം മറ്റ് ഭാഷയുടെ എല്ലാം അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അടുത്ത തലമുറ വരുമ്പഴേക്കും കൈയ്യെഴുത്ത് എന്നുള്ള ഒരു സംഗതി ഉണ്ടാവാൻ സാധ്യതയില്ല പിന്നെ അല്ലെങ്കിൽ വേണ്ട ഇപ്പം എഴുതുന്നതിനെ കുറിച്ചിട്ട് ഇത്രയൊക്കേ ഉള്ളൂ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തായാലും മൊബൈലിൽ ടൈപ്പ് ചെയ്യാനാണ് അത് ഈസിയാണ് എവിടെ ഇരുന്നും ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ചെയ്തതിൻ്റെ ബാക്കി പിന്നീട് ചെയ്യാൻ വെച്ചാലും പെട്ടെന്ന് വായിച്ച് നോക്കിയിട്ട് എവിടെയൊക്കെ കയറ്റുവോ നീക്കിക്കളയുകയും ഒക്കെ ചെയ്യുന്നതിന് എളുപ്പമുണ്ട് നല്ല റീഡബിൾ ആണ് അതുകൊണ്ട് ഞാൻ പ്രിപറ് ചെയുന്നത് കൈയ്യെഴുത്തിനേക്കാൾ കൂടുതൽ ഈ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്നതാ അത്യാവശ്യത്തിന് കൈയ്യെഴുത്തുണ്ടെങ്കിലേ സാധിക്കു ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൈയ്യെഴുത്തിലെഴുതിയ ഒരാൾ ഒരു സംഗതി ഇപ്പം ദൂരെയുള്ള ആളെ എത്തിക്കണമെങ്കിൽ നമ്മൾക്ക് പോസ്റ്റ് ഓഫിസിൽ അശ്രയിച്ചേ പറ്റൂ ഇതാവുമ്പോൾ എഴുതുന്നതും നമ്മൾ എഴുതി തീരുമ്പോഴത്തതിന് ആ അത് കിട്ടേണ്ട പാർട്ടിക്ക് വായിച്ച് തീരാനും പറ്റും അത് എളുപ്പമുള്ള സംഗതി മൊബൈലിലോ ലാപ്ടോപിലോ ചെയ്യുന്നതാണ്